എല്ലാവരേം ജീവിതത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് യാത്ര എന്ന് പറയുന്നത് പല സന്ദർഭങ്ങളിലും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പല കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടിയിട്ടും പല കാര്യങ്ങൾ നേടുവാൻ വേണ്ടിയിട്ടും യാത്ര അനിവാര്യമാണ് യാത്ര ചെയ്യാത്ത മനുഷ്യൻമാരെന്ന് പറയുന്നത് കുറവ് തന്നെയാണ് കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു പ്രധാന ഘടകമാണ് യാത്ര ഈ യാത്രയെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് പല രീതിയിലുള്ള ഗതാഗത സൗകര്യങ്ങൾ ഗതാഗതമെന്ന് പറയുന്നത് യാത്രയുടെ മറ്റൊരു പേര് ഗതാഗത സൗകര്യങ്ങളെന്ന് പറയുന്നത് യാത്ര യാത്രയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യന്മാർ കണ്ട് പിടിച്ച വിവിധ രീതികൾ ആ ഓക്കേ അപ്പോൾ മനുഷ്യമാരുടെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ യാത്ര ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് പല തരത്തിലുള്ള ഗതാഗത സൗകര്യങ്ങൾ കണ്ട് പിടിച്ചത് ഇതിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് നമുക്ക് അറിയാം ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് ടയർ അതായത് വൃത്താകൃതിയിലുള്ള ടയർ കണ്ട് പിടിച്ചതിന് ശേഷമാണ് മനുഷ്യൻ്റെ ഗതാഗതം എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ അതായത് ഏറ്റവും സുഗമമായത് ഈ വൃത്താകൃതിയിലുള്ള ടയർ കണ്ടുപിടിച്ചതിന് ശേഷമാണ് പണ്ട് കാലം മുതൽ തന്നെ ആ ഓക്കേ ഇതിനു ശേഷം അതായത് ഈ ടയറിൻ്റെ ആരംഭത്തിന് ശേഷം മനുഷ്യന്മാരുടെ ഈ ഗതാഗതം എളുപ്പമായി ആദ്യ ആദ്യകാലഘട്ടത്തിൽ ഇത് മനുഷ്യൻ തന്നെ അതായത് വാഹനങ്ങളുടെ രൂപത്തിലാക്കി മനുഷ്യൻ തന്നെ വലിച്ചുകൊണ്ട് പോയി പക്ഷേ മനുഷ്യ അമിത അതായത് ചില സന്ദർഭങ്ങളിൽ അമിത ഭാരം മനുഷ്യന് കൊണ്ടുപോവാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അമിതഭാരം വെൽ കൊണ്ട് പോകാൻ പ്രാപ്തിയുള്ള മൃഗങ്ങളെ നമ്മൾ അതിലുപയോഗിച്ചു അതിന് എക്സാമ്പിൾ ആണ് എന്ത് കഴുതകളെ ഉപയോഗിച്ചു അതേപോലെ തന്നെ കുതിരകളെ ഉപയോഗിച്ചു കാളകളെ ഉപയോഗിച്ചു അങ്ങനെ പല മൃഗങ്ങളെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു പണ്ട് കാലത്തിലെ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളതാണ് കാള വണ്ടികളും കുതിര വണ്ടികളും അതേപോലെ സാധനങ്ങൾ കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് കഴുത കഴുത കഴുതപ്പുറത്തൊരു വാഹനം പോലെയുള്ള ഇത് ഉണ്ടാക്കിയിട്ട് കഴുത വലിച്ച് കൊണ്ട് പോകുന്ന രീതിയിലുള്ള രീതി വാഹനങ്ങളുണ്ടാക്കി അതേപോലെ തന്നെ കാളവണ്ടികൾ ഉണ്ടാക്കി ഇതൊക്കെ എന്താക്കാം മനുഷ്യൻ്റെ ഗതാഗതത്തിനെ ഒരു ഒരു എന്താണ് മനുഷ്യൻ്റെ ഗതാഗതത്തിന് ഒരു മുൻ ഒരു മനുഷ്യൻ്റെ ഗതാഗതത്തിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ട് മാറി അപ്ഡേറ്റഡ് വേർഷൻ എന്ന് പറയുമ്പോൾ ആ ഓക്കേ അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഈ എന്ത് കാളവണ്ടികളും അങ്ങനെയൊക്കെ ഉള്ളത് പക്ഷേ അതിന് ശേഷം എന്നാൽ മനു ചില സാഹചര്യം ഗതാഗതമെന്ന് പറയുമ്പോൾ സമയത്തെയും കൂടെ ആശ്രയിച്ചിരിക്കുന്നതാണ് ചില കാര്യങ്ങൾ നമുക്കെന്ത് വേണം വേഗത്തിലെത്തിച്ചേക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പല അതായത് ചില സമയങ്ങളിൽ പണ്ട് കാലങ്ങളിലുള്ള ഗതാഗത സൗകര്യങ്ങൾ പോരാതെ വന്നു അതായത് സമയബന്ധിതമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാ അതായത് സമയബന്ധിതമായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി കൃത്യ സമയത്ത് തന്നെ എത്തണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് എന്തായി ഈ കുതിര വണ്ടികളും കാള വണ്ടികളും മത് മതിയാകാതെ പോയി അപ്പോൾ പുതിയ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളിലേക്ക് മനുഷ്യർ പോയി അതിനുള്ള ഒന്നാണ് യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് പണ്ടത്തെ കാളവണ്ടിയേയും കുതിരവണ്ടിയേയും അപേക്ഷിച്ച് യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് മനുഷ്യൻ്റെ ഗതാഗതത്തെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ട് പോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാ പ്രധാനപ്പെട്ടൊരു ഘടകമായി മാറിയിരിക്കുന്നത് കാരണം വേഗത എന്ന് പറയുന്ന ഒരു ഇത് ആർജ്ജിക്ക് അതായത് വേഗ വേഗത്തിൽ ഗതാഗതം നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഈ യന്ത് അതായത് യന്ത്രങ്ങളുടെ കണ്ടുപിടിത്തം മൂലം മനുഷ്യൻമാർക്ക് സാധിച്ചു പണ്ടുകാലങ്ങളിൽ ഇപ്പോഴത്തെയും കംപേർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗതാഗതങ്ങളായ അതായത് ബൈക്കുകൾ ബസ്സുകൾ കാറുകൾ അതായത് റോഡ് ഗതാഗതം അതേപോലെ തന്നെ വെള്ളത്തിലൂടെയുള്ള ഗതാഗതം അതായത് ബോട്ടുകൾ കപ്പലുകൾ വിമാ ആകാശത്തിലൂടെയുള്ള വിമാനങ്ങൾ എന്നിവയുടെ കണ്ടുപിടുത്തം മനുഷ്യനെ ഏറ്റവും മുന്നിലോട്ട് എത്തിച്ചു കാരണം വേഗത കാരണം മനുഷ്യർക്ക് ഏറ്റവും വേണ്ടത് ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് അതിനുവേണ്ടിയിട്ട് എന്താണ് ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ വേഗതയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇത് ആർജ്ജിക്കുവാൻ വേണ്ടിയിട്ട് യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ ഒരു വലിയ നേട്ടമായി മാറി മുൻപത്തെ അപേക്ഷിച്ച് ഇപ്പോൾ എന്താണ് പുതിയ രാ പുതിയ യാത്ര രീതികൾ നമുക്കറിയാവുന്നതാണ് തീവണ്ടികൾ അതായത് ട്രെയിൻ വിമാനങ്ങൾ ഇതൊക്കെ എന്താണ് മനുഷ്യൻ്റെ യാത്രയിൽ എളുപ്പമാക്കുകയും മനുഷ്യന് ഒരുപാട് ചെറിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനും അതേപോലെ തന്നെ ചെറിയ സമയം കൊണ്ട് ദൂരെ സ്ഥലത്ത് എത്തിച്ചേരുവാനും ഇതക്കെ സാധിക്കുന്നതിനു കാരണമായിട്ട് വരുന്നത് പുതിയ രീതിയിലുള്ള ഗതാഗത സം സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ തന്നെയാണ്

ഇന്നത്തെകാലത്ത് എന്ന് പറയുന്നത് ഓരോരോ ആൾക്കാർക്കും അതായത് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോരോ ഓരോ വീട്ടിലും ഓരോ വാഹനങ്ങളുള്ള രീതിയിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് നമ്മൾ മാറിയിട്ടുള്ളത് വാഹനങ്ങളുടെ കണ്ടുപിടുത്തം തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തെ ഇപ്പോൾ പഴയ പഴയതിൽ നിന്നും പുതിയതിലേക്ക് എന്താണ് പറയേണ്ടത് പഴയതിൽ നിന്ന് പുതിയതിലേക്ക് മാറ്റം കൊണ്ട് വന്നതിൽ ഗതാഗത സൗകര്യം വളരെ എന്ത് ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഏറ്റവും കു ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മനുഷ്യന്മാർ ചെറി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കുകയും അവയിലൂടെ ഒരുപാട് നേട്ടങ്ങളും അതേപോലെ തന്നെ പു പുരോഗതികളും ഉയർച്ചകളും മനുഷ്യർക്ക് ഉണ്ടാവുകയും ചെയ്തു ഇതിനൊക്കെ കാരണമായിട്ടുള്ളത് ഗതാഗതത്തിൻ്റെ മാറ്റങ്ങളും അതേപോലെ തന്നെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുമാണ് പണ്ട് ഉള്ളതിനേക്കാൾ ഇന്നത്തെ ജീവിതം നിലവാരം മെച്ചമായ മെച്ചമാ ഒരു രീതിയിൽ മെച്ചപ്പെടുത്താൻ സഹായകമായിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഗതാഗതത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും ഗതാഗത സൗകര്യങ്ങളുടെ ഉയർച്ചയും അപ്ഡേഷനും തുടരെ തുടരെയുള്ള പരീക്ഷണങ്ങളും വിജയങ്ങളും ഇതൊക്കെ തന്നെയാണ്